ഇപ്പോൾ ഡെങ്കിപ്പനിയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പകർച്ചവ്യാധി പോലെയാണ് പകർന്ന് കൊണ്ടിരിക്കുന്നത് കാരണമെന്ന് വെച്ചുകഴിഞപഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ നാടുകളിൽ കൊതുക് ശല്യം വല്ലാണ്ട് രൂക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ മാലിന്യം കാര്യങ്ങളൊക്കെ ഓടയിൽ കെട്ടി നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമ്മളുടെ ഇതിൽ ഒഴുകുന്ന വൃത്തിഹീനമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കെട്ടി നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽത്തന്നെ കൊതുകുകൾ നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള കൊതുക് ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതലായിട്ടും കൊടു കൊതുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി മലേറിയ ചിക്കൻഗുനിയ അങ്ങനത്തെ പല രീതിയിലുള്ള രോഗങ്ങൾ കൊണ്ടു വരുന്ന ഒരു ഗണത്തിൽ പെട്ട കൊതുകുകളാണ് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിൽ പെട്ട കൊതുകുകളുണ്ട് ഈഡിക്സ് കൊതുകാണ് ചിക്കൻഗുനിയും കാര്യങ്ങളൊക്കെ പക പകർത്തുന്നത് അത് നമ്മൾ മെയിനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആശൂത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയാണ് കൂടുതലായിട്ടും കൊതുകിൻ്റെ ശല്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെയാണ് കുറച്ചു കൂടി നല്ല രീതിയിൽ വൃത്തിയാക്കേണ്ടതെന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അത് നമ്മൾ അങ്ങനത്തെ ഓടയും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് നല്ല എന്താ നമ്മളെല്ലാം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കൊതുക് മുട്ട ഇട്ട് കൊതുക് വളാരോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമുണ്ടാവില്ല അപ്പോൾ അത് മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽത്തന്നെ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരില്ല